കഷ്ടപ്പെട്ട് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അസൈൻമെൻ്റ് ഓരോ ദിവസം ഞങ്ങൾക്ക് തരുമ്പോൾ കഷ്ടപ്പെട്ട് ഞങ്ങളത് ഞങ്ങൾക്കത് സോൾവ് സോൾവ് ചെയ്തെടുക്കാൻ നല്ല കഷ്ടപ്പാടാണ് ഒന്നാമത് ഇൻറ്റർനെറ്റിലത് സെർച്ച് ചെയ്യണം അതിൽനിന്ന് എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത് ഞങ്ങൾ പഠിച്ച് അതിനനുസരിച്ചുള്ളത് ഞങ്ങൾ ഷോട്ട് ലിസ്റ്റ് ചെയ്ത് പിന്നീട് അതിനെപ്പറ്റി ഒന്ന് പഠിച്ച് പിന്നീടാണ് ഞങ്ങൾ അസൈൻമെൻ്റ് എഴുതുക പിന്നീടുള്ള സംഭവമെന്ന് പറയുന്നത് സെമിനാറെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഓരോ ടോപ്പിക്സും കണ്ടുപിടിക്കുക ഇപ്പോഴത്തെ കാലത്തൊക്കെ പ്രൊജക്ടെന്ന് പറയുന്നത് കുറച്ചുകൂടെ സെർച്ച് റിസർച്ച് ആവശ്യമാണ് കാരണം ഒട്ടുമിക്ക സിംപിൾ ആൻഡ് ബേസിക്ക് പ്രൊജക്റ്റ്സൊക്കെ ഒട്ടുമിക്ക എല്ലാ കമ്പനീസും എല്ലാ സ്റ്റുഡൻറ്സും മുന്നേ പഠിച്ച കുട്ടികളും എല്ലാവരും ചെയ്തിരിക്കുന്നതായിരിക്കും സോ എടുത്ത പ്രൊജക്ടുതന്നെ വീണ്ടും എടുക്കാൻ പറ്റാത്തതിനാൽ ഞങ്ങൾക്ക് പ്രോജക്ട് ചൂസ് ചെയ്യാനൊക്കെ ഒരു വലിയൊരു ലക്ഷ്യമായിരുന്നു അതേപോലെ തന്നെയൊരു ഇപ്പോൾ എൻജിനീയറിങ്ങ് പൂർത്തിയാക്കി ഞങ്ങൾക്കൊരു നല്ല ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള കഷ്ടപ്പാട് ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളിപ്പോൾ അതിൽകൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുതന്നെയാണ് ഇപ്പോൾ ഒരാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം പിന്നീട് പറയുകയാണെങ്കിൽ ഏറ്റവും അതിനെ അതിജീവിച്ച് ഞങ്ങൾ ഞങ്ങൾ കൂട്ടത്തോടെയിരുന്ന് ഞങ്ങളത് എങ്ങനെയെങ്കിലും എല്ലാവരും കണ്ടെത്തിക്കൊടുക്കും അതേപോലത്തന്നെ അസൈൻമെൻ്റ് എഴുതുന്ന കേസിലാണെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പായിരുന്നു ഓരോരുത്തർ ഓരോ ടോപ്പിക്കിങ്ങനെ നോക്കി സെർച്ച് ചെയ്ത് കണ്ടെത്തും എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും കൂടെ ഷെയറു ചെയ്ത് ഒരു അക്യൂറേറ്റായിട്ടുള്ള അസൈൻമെന്റ് ഞങ്ങളെഴുതും പിന്നീട് ഇപ്പോൾ ജോബിനെ പറ്റി പറയുകയാണെങ്കിൽ ഓരോർത്തർക്ക് വരുന്ന അറിവുള്ള കാര്യങ്ങൾ ബാക്കി ഉള്ളവരിലോട്ട് പകർന്ന് കൊടുക്കും